ഹലോ ഞാന് ബി എ ലിറ്ററേച്ചറിന് പഠിക്കുന്ന ബാബൂ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ആണ് സാർ സാറ് സാറ് ആ സുഖമായിരിക്കുന്നു സാർ സാറ് എൻ്റെ ഐ ഡി കാർഡ് നഷ്ടപ്പെട്ട് പോയി ബസില് യാത്ര ചെയ്യുമ്പഴാണ് നഷ്ടപ്പെട്ടത് എങ്ങനാണ് എവിടാണെന്നറിയത്തില്ല സാറ് എനിക്കൊര് പുതിയത് അലോട്ട് ചെയ്ത് തരുമോ ബസില് ഭയങ്കര തള്ളായിരുന്നു സാർ അ ആ തള്ളിന് ഇടയ്ക്ക് എങ്ങനെയോ പിള്ളേര് ഏതാണ്ട് പിടിച്ച്പറിച്ച് എങ്ങാണ്ട് പോയതാണ് ആ ആ കിട്ടാനുള്ള ഞാൻ അനേഷിച്ചു പിള്ളേർ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു അവര് പറഞ്ഞു കണ്ടില്ല നോക്കി എടുത്ത് വെക്കാമെന്ന് പറഞ്ഞു കിട്ടിയാൽ അത് കിട്ടുമെന്ന് തോന്നുന്നില്ല ആ ആ ആ സമർപ്പിക്കാം ആ മ്മ് മ്മ് ആ ആ ഓ ഓ ഓ അയ്യോ അയ് സാർ ഫൈന് എത്ര രൂപയാവും സാറെ ഞങ്ങളുടെ വീട്ടിൽ നിവർത്തി ഇല്ലാതെ ഇരിക്കുവാണ് അച്ഛന് ജോലിയില്ല മൂത്തൊരു സഹോദരി പഠിക്കുന്നു ഇത് വളരെ ബുദ്ധിമുട്ടിയാണ് ഞാന് വരുന്നത് അത് ബസില് വരുന്നത് കൺസെഷൻ എടുത്ത് വരുവാണ് സത്യത്തിൽ യഥാർത്ഥത്തില് രാവിലെ ആഹാരം പോലും കഴിക്കാതെയാണ് വരുന്നത് സ്കൂളിൽ

ഓക്കെ സാർ ആ ശരി ശരി സാർ ശരി സാർ

ആ സാറെ ഒര് സംശയം കൂടെ ആ ഒര് സംശയം കൂടെ ഈ പഴയ ഐ ഡി കാർഡിൻ്റെ കോപ്പി എൻറ്റേ കയ്യിൽ ഇല്ല അത് പ്രശ്നം വല്ലതും ആകുമോ ആ അതുണ്ട് അതുണ്ട്

അല്ല വേറൊര് കുട്ടിയോട് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞ് പഴയതിൻ്റെ കോപ്പി കൊണ്ട് കൊടുക്കണമെന്നു അതാ ഞാൻ ചോദിച്ചത് ആ ഓ അത് ശരി ആ അ

ആ ഓർമയുണ്ട് ഓർമയുണ്ട് ഓർമയുണ്ട് സാർ

തീർച്ചയായും തീർച്ചയായും സാർ ഓക്കെ ക്ഷമ ചോദിക്കുന്നു സാർ പോയതില് ഓക്കെ ഓക്കെ ഓക്കെ താങ്ക്യൂ